നമ്മുടെ സ്ഥലത്തിൻ്റേയും പിന്നെ പ്രാദേശിക സ്ഥലത്തിൻ്റെയും പിന്നെ സംസ്ഥാനത്തിൻ്റെയൊക്കെ പ്രത്യേക കലകളാണ് ഡാൻസ് പിന്നെ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഓട്ടം തുള്ളൽ നാടൻ പാട്ട് പിന്നെ മാർഗ്ഗംകളി കോൽക്കളി പിന്നെ അങ്ങനെയുള്ള സാഹിത്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലകളെല്ലാം നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കലകളാണ് അതിനെ സംരക്ഷിക്കാനായിട്ട് ഇപ്പം കലാകാരൻമാർ ഈ ദേശത്തുള്ള കലാകാരന്മാർ ഒക്കെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അത് കുട്ടികളെ സ്കൂളുകളിൽ സ്കൂളുകളിലൂടെയും മറ്റ് കലാ സാഹിത്യ പരിശീലന കേന്ദ്രങ്ങളിലൂടെയുമൊക്കെ അവർ ഒത്തിരി പരിശീലനം നൽകി കുട്ടികളെയും മുതിർന്നവരെയുമൊക്കെ അതിന് വേണ്ട കഴിവുകൾ അവർക്ക് പഠിപ്പിച്ച് കൊണ്ട് അവരെ നല്ല കലാകാരന്മാരും കലാകാരികളുമൊക്കെ ആക്കി തീർക്കാറുണ്ട് അപ്പം അത് നമ്മുടെ സ്കൂളുകളിലൊക്കെയാണങ്കിലും ഇന്ന് കുട്ടികൾ ഒക്കെ ചെയ്യുന്ന കലകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമ്മൾ കാണുമ്പോഴറിയാം അവർ എത്രമാത്രം പരിശീലനം നേടിയിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ നല്ല പരിശീലനത്തിലൂടെ കുട്ടികൾ അത് നല്ല കലാകാരന്മാരും കലാകാരികളും ആകുകയാണ് ചെയ്യുന്നത് നമ്മുടെ സമ്പത്ത് നാടിൻ്റെ അല്ലങ്കിൽ പ്രദേശത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു സമ്പത്ത് തന്നെയാണ് അതിനെ ഇനിയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു